ഹലോ ചേച്ചി ഇപ്പോഴത്തെ പുതിയതായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം സമ്പ്രദായത്തിൽ ഇൻ്റഗ്രേറ്റഡായിട്ടുള്ള കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പം കോളേജുകളിലെല്ലാം ഇൻ്റഗ്രേറ്റഡ് ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാംസ് പുതിയതായിട്ട് സ്റ്റാട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിനെ പറ്റിയിട്ടുള്ള ചേച്ചിയുടെ അഭിപ്രായം എന്താണ് എന്നൊന്ന് വിവരിക്കാമോ ഇപ്പം നമ്മുടെ പുതിയ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പുതിയതായിട്ട് ഇൻവെൻ്റ് ചെയ്തിരിക്കുന്ന കൊണ്ടു വന്നിരിക്കുന്ന ഒന്നാണ് നാല് വർഷ ബിരുദ പ്രോഗ്രാം എന്നുള്ളത് എഫ് വൈ യു ജി പി എന്ന പേരിൽ ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം എന്ന പേരിൽ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ പിള്ളേർക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് പണ്ട് കാലത്ത് ഒരേ രീതിയിൽ പിള്ളേർ പഠിച്ചു വരുവായിരുന്നു അതായത് ഇപ്പോൾ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു വിഷയം മേജർ ആയിട്ട് എടുത്ത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ആ കൊമേഴ്സ് പഠിക്കുന്നു അതിന് കോംപ്ലിമെൻ്ററി ആയിട്ട് കുറച്ച് സബ്ജക്ടുകൾ പഠിക്കുന്നു അപ്പോൾ ചിലപ്പോൾ ഈ കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവർ പഠിക്കുന്ന സബ്ജക്ടുകൾ ഇവർക്ക് കരിയറിൽ ഉപയോഗപ്പെടാത്തത് ഇവർക്ക് താല്പര്യമില്ലാത്തതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം ഇപ്പം ഒരു ക്ലാസിൽ അൻപത് കുട്ടികൾ ഉണ്ടെങ്കിലും അൻപത് കുട്ടികളും ഈ ഒരു വിഷയം തന്നെ ഈ ഒരേ രീതിയിലുള്ളത് ഫോളോ ചെയ്ത് മൂന്നാം വർഷം കഴിയുമ്പോൾ ഇവർ പരീക്ഷ എഴുതി മൂന്നു വർഷം കഴിയുമ്പോൾ ഇവർ പുറത്ത് പാസ് ഔട്ട് ആകുന്ന രീതിയായിരുന്നു പക്ഷേ ഇപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ച് അവരുടെ സ്വാതന്ത്ര്യത്തിന് അനുസരിച്ച് അവരുടെ കോഴ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന തരത്തിലാണ് ഈ നാല് വർഷ പ്രോഗ്രാമ് ഗവൺമെൻ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കുട്ടി അവന് ഇഷ്ടമുള്ള കോമേഴ്സ് എന്ന് പറയുന്ന മേജറ് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ അവൻ കൊമേഴ്സ് എന്ന സബ്ജക്റ്റ് മേജറ് പഠിക്കുന്നു അതിനോടൊപ്പം തന്നെ മൈനറായിട്ട് അവന് ഇഷ്ടമുള്ള സബ്ജക്ടുകൾ പഠിക്കാം കൊമേഴ്സെന്ന് പറയുന്ന സബ്ജക്ട് തന്നെ പഠിക്കണമെന്നില്ല കൊമേഴ്സ് അവൻ പഠിക്കരുത് പകരം അവന് മ്യൂസികോ അല്ലെങ്കിൽ ഇപ്പം ഇൻസ്ട്രുമെൻ്റേഷൻ ഇൻസ്ട്രുമെൻസ് എന്തെങ്കിലും ആണെങ്കിൽ അതോ അതല്ല എന്നുണ്ടെങ്കിൽ സയൻസിൽ നിന്നുള്ള ഏതെങ്കിലും സബ്ജക്ട് ആണെങ്കിലോ ലിട്രറേച്ചർ ആണെങ്കിലോ അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്ടമുള്ള ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും അവന് മൈനറായിട്ട് പഠിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അതോടൊപ്പം തന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറഞ്ഞു വരുന്നു അതായത് ഇതോടൊപ്പം തന്നെ ഇവന് വേറെ ഏതെങ്കിലുമൊക്കെയുള്ള സബ്ജകടുകളിൽ അവന് പേപ്പറുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം കൊമേഴ്സ് മേജറ് എടുത്തു കൊണ്ടു തന്നെ ഇവന് ഇഷ്ടമുള്ള എല്ലാ സബ്ജക്ടുകളും ഈ ഡിഗ്രിയിൽ അവന് പഠിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഈ രണ്ടര വർഷം കൊണ്ട് വേണമെങ്കിൽ ഡിഗ്രി പാസ് ഔട്ടാകാം അതായത് ഒരു ക്രെഡിറ്റ് ആണ് നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് എന്ന ആ ഒരു കടമ്പ രണ്ടര വർഷം കൊണ്ട് ഒരു മിടുക്കനായ വിദ്യാർത്ഥി കവറ് ചെയ്യുകയാണെങ്കിൽ രണ്ടര വർഷം കൊണ്ട് അവന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് തന്നെ വാങ്ങിച്ച് കൊണ്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ വിന്നീട് റിസെർച്ച് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് ഡിഗ്രിയിൽ സ്കോറ് ചെയ്താൽ അവന് നാലാം വർഷത്തിലേക്ക് പ്രവേശിക്കാം ഏഴാമത്തെ സെമസ്റ്ററിൽ വരുമ്പോൾ ഏഴാമത്തെ സെമസ്റ്ററിൽ റിസെർച്ച് ഓറിയൻ്റഡ് ആയിട്ടാണ് പോകുന്നത് അതിനാണ് നമ്മൾ ഓണേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് അവന് ഓണേഴ്സ് ചെയ്യാം അപ്പം നാലാമത്തെ വർഷം അവൻ അങ്ങനെ പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഏഴാമത്തെ സെമസ്റ്റർ പഠിച്ചു എട്ടാമത്തെ സെമസ്റ്ററിൽ ഫുൾ പ്രോജക്ടും ഇൻ്റേൺഷിപ്പുമാണ് അതിൻ്റെ കൂടെ ഓൺലൈനായിട്ട് രണ്ടു കോഴ്സുകളുണ്ട് ഇനി പ്രോജക്ടും ഇൻ്റേൺഷിപ്പും ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു കോഴ്സും കൂടെ ഓൺലൈൻ ചേർന്നു ചെയ്തു കഴിഞ്ഞാൽ ഈ ഓണേഴ്സ് ഡിഗ്രി പൂർത്തിയാക്കി നാലാം വർഷം ഇറങ്ങാം അവിടെയും നൂറ്റി എഴുപത്തി ഏഴ് ക്രെഡിറ്റാണ് ഈ നൂറ്റി എഴുപത്തി ഏഴ് ക്രെഡിറ്റ് എന്നുള്ളത് ആ കുട്ടി മൂന്നര വർഷം കൊണ്ട് നേടുകയാണെങ്കിൽ അവിടെയും മൂന്നര വർഷം കൊണ്ടു തന്നെ ഓണേഴ്സ് ഡിഗ്രി പൂർത്തിയാക്കി ഇറങ്ങാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഇൻ്റർനാഷണൽ കോമ്പാറ്റബിലിറ്റി ഉള്ളതാണ് ഇപ്പം ഇപ്പോൾ ഒരുപാട് പിള്ളേർ പുറത്തേക്ക് പോകുന്നുണ്ട് അല്ലെ ഡിഗ്രി കഴിഞ്ഞിട്ട് പുറത്തേക്കു പോവാൻ വേണ്ടിയിട്ട് ഒരുപാട് പേർക്ക് താല്പര്യമാണ് അവർ പുറത്തേക്ക് പോകുന്നതിനെ കുറിച്ചാണ് ആദ്യം ചിന്തിക്കുന്നത് അപ്പം ഇങ്ങനെ ഒരു സിസ്റ്റം വന്നു കഴിയുമ്പോൾ ഈ പുറത്തോട്ട് ഇൻറ്റർനാഷണൽ കോംപാറ്റബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകാനുള്ള എളുപ്പം സാഹചര്യങ്ങളും അല്ലെങ്കിൽ അതിന് അവർക്കുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ വാല്യുവും വളരെ കൂടുതലാണ്

മേജർ കൊമേഴ്സ് ആണ് എടുത്തത് അപ്പം തേഡ് സെമസ്റ്റർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് എന്താണ് മേജറ് മാറ്റി മൈനറായിട്ട് ഇവർ പഠിച്ചത് മേജർ ആക്കണമെന്ന് ഉണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഈ കുട്ടികൾക്കുണ്ട് ഇവർ ഇവർ ഏത് വിഷയത്തിലാണോ ഇവർ മാസ്റ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ മേജറ് ചെയ്യുന്നത് ആ മേജറിന് ഇവർക്ക് ടോട്ടൽ ക്രെഡിറ്റിൻ്റെ അൻപത് ശതമാനം മേജറായി മേജർ വിഷയത്തിൽ തന്നെ കുട്ടി നേടേണ്ടതുണ്ട് അത് മാത്രമാണ് ഇതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ഇനി ഇവർ ജോയിൻ ചെയ്ത കോളേജുകളിൽ ഇവർക്ക് ഈ കോഴ്സ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ട് ഇവർക്ക് പഠിക്കാൻ ഇവർക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജെക്ടുകൾ പഠിക്കാനുള്ള എം ഡി സി ആയിട്ടും അല്ലെങ്കിലും മൈനറായിട്ടും അവർക്ക് പഠിക്കാനുള്ള അവസരമുണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കാൻ അവസരമുണ്ട് വൺസ് ഒരു കോഴ്സിൽ ഇൻ ആയി അതിനു ശേഷം അൺഫോർചുനേറ്റ്ലി ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു ഒരു ബ്രേക്ക് വേണം എന്ന് ആ കുട്ടിക്ക് ആവശ്യമായി വന്നു കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ അവൻ ആ കോഴ്സ് അവിടെ തൽക്കാലത്തേക്ക് പോസ് ചെയ്തു വയ്ക്കാം എന്നിട്ട് മൂന്നു വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും തിരിച്ചു വരികയും ആ നിർത്തിയ അടുത്ത് നിന്ന് തന്നെ ഇത് റീസ്റ്റാട്ട് ചെയ്യാൻ ആ കുട്ടിക്ക് അവസരം കിട്ടുകയും ചെയ്യും അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ബെനഫിറ്റുകളാണ് ഈ ഫോർ ഇയർ പ്രോഗ്രാമിൽ ഉള്ളത് അപ്പം ഒരേ അച്ചിൽ നിന്ന് വാർത്ത് എടുക്കുന്നതിന് പകരം കുട്ടികളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് അവരുടെ ഭാവനയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവരെ അഭിരുചിക്ക് അനുസരിച്ച് അവർക്ക് ആവശ്യപ്പെട്ട വിഷയങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് പുതിയ എഫ് ഐ യു ജി പി പ്രോഗ്രാമിലൂടെ ഓരോ കുട്ടികൾക്കും കിട്ടുന്നത് അപ്പം അതിൻ്റെ ബെനഫിറ്റ് ഏറ്റവും വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ വൈസ് ആയിട്ട് ഇത് ഉപയോഗിക്കുക ആണെങ്കിൽ വളരെ നല്ല ഒരു കരിയർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വിദ്യാർത്ഥിക്കും സാധിക്കും അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്